ഞാൻ പിന്നെ അതായത് എപ്പോഴെങ്കിലും വിനോദവൃത്തിയായിട്ടുള്ള പാചകം ഒരു വ്യവസായമാക്കി മാറ്റണമെന്ന് ഓർത്തിട്ടുണ്ടോയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഓർത്തിട്ടും ഉണ്ട് ഞാനങ്ങനെ ഒരു ത് ഹോട്ടൽ കാര്യങ്ങൾ നടത്തിയിട്ടും ഉണ്ട് ഞാനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലൊക്കെ അത്യാവശ്യം നല്ലവണ്ണം കുക്ക് ചെയ്യുമായിരുന്നു പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ഹസ്ബൻ്റ് ഗൾഫിൽ നിന്നു വന്ന സമയം അത്യാവശ്യം ക്യാഷൊക്കെ കൊണ്ടാണ് വന്നത് പിന്നെ ഗൾഫിൽ പോകുന്നില്ലയെന്നുള്ളൊരു മൈൻ്റിൽ അതായത് മോ മക്കളൊക്കെ ആയപ്പോൾ പിന്നെ പോകുന്നില്ല എന്നൊരു മൈൻ്റിൽ ഇവിടെ എന്തെങ്കിലും സംരംഭം കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്നുള്ളൊരു എന്നോട് പറഞ്ഞിട്ടാണ് ഹസ്ബൻ്റ് അവിടെ നിന്ന് വന്നത് പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ട് അതൊരു റോഡ് സൈഡിലൊരു ചെറുതായിട്ടൊരു പിന്നെ പുല്ലു മേഞ്ഞൊരു നല്ലൊരു സെറ്റപ്പിലൊരു പിന്നതു തുടങ്ങി പഴങ്കഞ്ഞിക്കടയാണ് തുടങ്ങിയത് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ കുറച്ചാൾക്കാർ കുറവായിരുന്നു പിന്നെപ്പിന്നെ പിന്നെ പിന്നെ പിന്നെ ഒരുപാടാൾക്കാർ വരാൻ തുടങ്ങി പിന്നെ അത് ഞങ്ങൾ ഒരു വ്യവസായമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ട് പോകാണ് കാരണമെന്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത്യാവശ്യം നല്ല ലാഭം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അത്യാവശ്യം ആളും കാര്യങ്ങളൊക്കെയുണ്ട് ഞങ്ങൾ ഈ ഒരു പൈസയും കൊണ്ടു തന്നെയാണ് ജീവിക്കുന്നത് അപ്പോഴെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതായത് ഞങ്ങൾക്ക് സാധനങ്ങൾക്കും വലിയ ചിലവൊന്നുമില്ല പക്ഷെ സാധനം അതായത് മീൻസ് കഞ്ഞിയൊക്കെ ആയതുകൊണ്ടുതന്നെ നമുക്ക് അധികം സാധനങ്ങളും കാര്യങ്ങളൊന്നും വേടിക്കേണ്ടി വരുന്നില്ല പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചിലവും ഉണ്ട്